പാടുന്നതിലുള്ള ഇഷ്ടം എന്നാണ് ഉടലെടുത്തതെന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലെ എനിക്ക് പാടുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതായത് ഒരു മൂന്നര നാല് വയസ്സ് എൽ കെ ജി യിൽ ഒക്കെ പഠിക്കുന്ന സമയത്തെ ഒരുപാട് പാട്ടുകൾ കേൾക്കുവായിരുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും സിനിമ പാട്ടുകളാണ് അപ്പം മെഹറുബാ മെഹറുബാ എന്നുള്ള പാട്ട് ഒക്കെ അന്ന് ചെറുപ്പക്കാലത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് ആ സമയത്ത് ഏറ്റവും കൂടുതലാളുകള് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ ആയിരുന്നു നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നത് അപ്പം ആ പാട്ടുകളുടെ ഭംഗി താളം അതിൻ്റെ പ്രത്യേകതകൾ വരികളെല്ലാം കുഞ്ഞിൽ പ്രായത്തിലെ കാണാതെ പഠിക്കുകയും ശ്രദ്ധിക്കുകയും പാട്ടുപാടുകയും ചെയ്തിരുന്നു അപ്പോൾ അതുവഴി പാട്ടിനോട് എനിക്കെന്തോ അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും വീട്ടുകാര് പാട്ട് ക്ലാസിലേക്ക് ചേർക്കാൻ കൊണ്ടുപോകുകയും ചെയ്തു ആ ഒരു അതുവഴി കുറച്ച് പാട്ടുകളൊക്കെ പഠിക്കുകയും പിന്നീട് സ്കൂൾ കലാമേളങ്ങളിൽ കോമ്പറ്റീഷനുകളിൽ എല്ലാം പങ്കെടുത്തു അതിൽ നിന്ന് ഫ്ര ഫസ്റ്റ് പ്രൈസ് ഒക്കെ വേ മേടിച്ചു സ്കൂളില് നമുക്കെന്തു പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ ആണ് ആദ്യം വിളിക്കുന്നത് പാട്ടുപാടാൻ അതുപോലെതന്നെ പ്രാർത്ഥന ഒരു സ്കൂളില് ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയിലൂടെയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പാട്ടുപാടുന്ന കുട്ടികളാണ് ആദ്യം എടുക്കുന്നത് അതുപോലെതന്നെ സ്കൂൾ അവസാനിക്കുന്നതും നമ്മുടെ ദേശീയ ഗാനത്തിലൂടെയാണ് അപ്പം പാട്ടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ഉള്ളത് അതുകൊണ്ടുതന്നെ പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ ഒരു പ്രശസ്തി അല്ലെങ്കിൽ പേര് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യമാണ് അപ്പം പാട്ടുപാടുന്നതിലുള്ള ഇഷ്ടം ചെറുപ്പം മുതലേ ഉള്ളതാണ് അത് സിനിമാഗാനങ്ങൾ കെ എസ് ചിത്രയുടെ പാട്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും അത് കേട്ട് പോകും പിന്നീട് ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളിലൊക്കെ എത്തുന്ന സമയത്ത് നല്ല നല്ല വരികൾ ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം അങ്ങനെയുള്ള വരികളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുംകൂടെ ഇഷ്ടം കൂടും പാട്ടുകളോട് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതുവഴിയെക്കെ പാട്ടുപാടാൻ ഉള്ള കഴിവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പാട്ട് പഠിക്കുക അപ്പോൾ പാട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നേടുന്നത് പാട്ടു പാടുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് സമൂഹത്തില് നല്ല ഇഷ്ടായിരിക്കും ഏതൊരു പരിപാടിയും പാട്ടു പാട്ടുക്കാരിലൂടെയാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യ് തുടങ്ങുന്നത് ഒക്കെ ചെയുന്നത് അല്ലേ